അതെ വിനോ എവിടുത്തേക്കാ എവിടുത്തേക്ക് എവിടുത്തേക്ക് മൂന്നാറിലേക്കാ എത്ര ആളുണ്ട് എപ്പം പോവാൻ വേണ്ടീട്ട് പതിനെട്ടിന് പോയി എപ്പോൾ തിരിച്ച് വരാൻ മൂന്നാറ് മാത്രം അല്ലേ വേറെ ഉണ്ടോ ഓ ഓ നാല് ആൾക്കാരുണ്ടല്ലേ ആ നാലാൾക്കും കൂടീട്ട് ടോട്ടൽ എത്ര പൈസ ആവൂന്നാ ഓരോരാൾക്ക് എത്ര പൈസ ആവൂന്നാ ടോട്ടല് ഇപ്പം നല്ല ദൂരം ഉണ്ടത് മൂന്നാറിലേക്ക് പിന്നെ അവിടത്തേക്ക് ടോളിന് മറ്റേ അത് ഇത് എല്ലം ഉണ്ടാവും ഇടയിൽ ആ എല്ലം കൂടീട്ടൊരു മൂന്നാറിൽ പോയിട്ട് വരാൻ വേണ്ടീട്ടൊരു ഏഴായിരത്തഞ്ഞൂറ് ഉർപ്യ ആവും ആ ഇപ്പം നാലാളാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരം ഉർപ്യ വച്ച് ഒരാൾക്ക് രണ്ടായിരം ഉർപ്യ ആയി രണ്ടായിരം ഉർപ്യ നിങ്ങൾ ഓട്ടോറിക്ഷ ആക്കുന്ന നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് ഉർപ്യ കുറച്ച് കൺസെഷൻ തരാം ബാക്കി ഉള്ള എല്ലാവരോടും രണ്ടായിരം രണ്ടായിരം രണ്ടായിരം മേടിച്ചോ അപ്പോൾ ആറായിരം ഉർപ്യ ആയില്ലേ പിന്നെ നിങ്ങൾ ഒരു ആയിരത്തഞ്ഞൂറ് തന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് ഉർപ്യ ലാഭം അല്ലേ അപ്പോൾ അത് പിന്നെ പോന്നെ

ആ പതിനഞ്ച് രാവിലെ എത്ര മണിക്ക് പൊന്നേ ആ ആറ് മണിക്ക് എടുത്ത് ഇവിടുന്നല്ലേ അപ്പോൾ ഞാൻ നേരത്തിൽ എത്തണ്ടേ ഓട്ടോറിക്ഷ ആ ആറ് മണിക്ക് വീട്ടിലേക്ക് എത്തിയാൽ മതി അല്ലേ പിന്നെ നിങ്ങൾ ഓട്ടോറിക്ഷ വന്നിട്ട് ഞാൻ വന്നാൽ എനിക്ക് ഫുഡ്ഡ് അത് ഇതെല്ലം വാങ്ങി തരുമോ അതിൽ പെടില്ല ആ അപ്പോൾ അത് ആ എഴുതി വെക്കാലോ ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ